ഇപ്പം കിണർ എന്ന് പറയുമ്പം കുഴൽ കിണറുണ്ട് അല്ലാതെ ബക്കറ്റ് ഇട്ട് കോരിയെടുക്കാൻ പറ്റിയ ഓപ്പൺ ആയിട്ടുള്ള കിണറും ഇപ്പോൾ ഉണ്ട് അപ്പോൾ കിണറ്റിൽ നിന്ന് എങ്ങനെ വെള്ളം കോരി പുറത്തെടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മോട്ടർ ഒന്നും ഇല്ലങ്കിൽ നമുക്ക് ബക്കറ്റ് ഇട്ട് തോ കപ്പിയും കയറും വച്ചിട്ട് നമുക്ക് വെള്ളം കോരി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ബോർ വെല്ല് അല്ലങ്കിൽ കുഴൽ കിണറൊക്കെ ആണെങ്കില് നമുക്ക് കൊ വെള്ളം കോരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മോ ഇലക്ട്രിക്ക് മോട്ടറുപയോഗിച്ചു മാത്രമേ നമുക്ക് വെള്ളം കോരാൻ പ മോട്ടറുപയോഗിച്ചു മാത്രമേ വെള്ളം നമുക്ക് ടാങ്കിലാണെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കാൻ പറ്റുള്ളു ഇപ്പം ഇലക്ട്രിക്ക് മോട്ടറ് എങ്ങനേയാ ഉപയോഗിക്കുന്നേന്ന് പറയുമ്പോൾ കരണ്ട് കരണ്ട് വഴിയാണ് നമ്മളിപ്പം മോട്ടറ് കറണ്ട് വഴി ഇപ്പം നമ്മള് മോട്ടറിന് നല്ല വിലയാണ് അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിയാലൊരുപാട് കത്ത് നല്ല ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് മോട്ടറിട്ട് യ്ക്കാൻ പാടില്ല ഇപ്പ കിണറ്റിലേക്ക് ഇറക്കിയിട്ട് പൈപ്പ് പൈപ്പിലൂടെ മൊട്ടറിലൂടെ സ്വിച്ചിടുമ്പോൾ പിന്നെ മോട്ടർലൂടെ പൈപ്പിലൂടെ വെള്ളം ടാങ്കിലേക്ക് കയറിയിട്ടാണ് നമ്മള് വെള്ളമെടുക്കുക അപ്പം അത് നിറയുമ്പോൾ പൈപ്പിലൂടെ പുറത്തേക്ക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അപ്പം വെള്ളം കയറീന്ന് അറിയുമ്പം നമ്മള് ആ ആ സ്വിച്ച് ഓഫ് ചെയുകയും ചെയ്യുമ്പോൾ ആ മോട്ടറിൻ്റെ പ്രവർത്തനം നിൽക്കുന്നു ഇങ്ങനെയാണ് നമ്മള് വെള്ളം കോരി എടുക്കുന്നത്